ഹലോ ഇവാനിയ ഡ്രൈ ക്ലീനിങ്ങ് ആണോ ആ ഇവിടെ ഡ്രൈ ക്ലീനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഡ്രെസ്സ് അപ്പോൾ അതിൻ്റെ ഒക്കെ റേറ്റൊക്കെ എങ്ങനെ ആണ് എനിക്ക് നല്ല വില കൂടിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു സാരിയും ചുരിദാറ് മോഡലൊക്കെ നല്ല അയ്യായിരം രൂപയുടെ ഒക്കെ ആയിരുന്നു അതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് തരുമോ അപ്പം അത് ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ നൂലിന് എന്തെലും കുഴപ്പമോ അതിൻ്റെ സ്റ്റോണിനൊക്കെ എന്തെലും കുഴപ്പങ്ങൾ ഒക്കെ വരുമോ ആണോ നിങ്ങൾ അത് വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആ അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഈ ഉദയഗിരി ഭാഗമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ചെയ്തുകൊടുത്തിട്ടുണ്ടോന്ന് ഇനി ഒരു അഡ്രസ്സ് എന്തെങ്കിലും ഒന്ന് തരുമോ ഞങ്ങൾ ഒന്ന് ചോദിച്ചിട്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സുകൾ വില കൂടിയ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു അപ്പം അതിൽ വല്ല സ്റ്റോണൊക്കെ ഇളകി പോയിട്ടുണ്ടെങ്കിൽ ഹാ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ഇപ്പം ആർക്കെങ്കിലും ചെയ്തുകൊടുത്തിട്ടുണ്ടെൽ ഒന്ന് പറയുവായിരുന്നെങ്കിൽ ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു ഞാൻ ഉദയഗിരിയിൽ ഒരു ഡിപോൾ സ്കൂളിൻ്റെ അടുത്തായിട്ടായിരുന്നു

മ്മ് അപ്പം അവിടെ ആ അറിയാം അറിയാം അറിയാം അറിയാം ആ ഒരു കടയൊക്കെ ഉള്ളതാണോ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ ആ അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അപ്പം പിന്നെ ആ അവരേക്കാൾ കഴിഞ്ഞൊക്കെ നല്ല വില കൂടിയ ഡ്രസ്സുകൾ ആയിരുന്നു വീട്ടിലിരിക്കുന്നത് വിദേശ നിർമ്മിതമായ ഡ്രസ്സുകളൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നത് അപ്പം ആ ഡ്രസ്സുകൾക്കൊക്കെ എന്തെങ്കിലും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നീട് അതൊരു ഇതാകുമല്ലൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത് ഡീറ്റേലായിട്ട് പിന്നെ അതിൻ്റെ കളറിന് കളർ ഇളകി പോകുമോ ആണോ നൂലിനെന്തെങ്കിലും കംപ്ലയിൻ്റ ഒക്കെ വരുമോ അപ്പം അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയായിരിക്കും രു പതിനായിരം രൂപയുടെ സാരിയൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ ഇപ്പം പത്തിന് മുകളിലേക്കുള്ള സാരിയൊക്കെ ഉണ്ടായിരുന്നു ആണോ അപ്പം ഞാൻ അതാരുടെ കൈയ്യിലാണ് കൊടുത്തുവിടേണ്ടത് മതിയോ അപ്പം എനിക്ക് കുറച്ച് അധികം ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല എനിക്ക് കുറച്ച് അധികം അപ്പം കുറേ

അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ലീവിന് വന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് രണ്ടായ്ചത്തെ ലീവ് ഉള്ളു അന്നേരം ലീവ് കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാം ശരിയാക്കി പെറുക്കി തരുമോ ഞങ്ങൾക്ക് രണ്ടാഴ്ച്ചത്തെ ലീവേ ഉള്ളു മ്മ് ആണോ അപ്പം അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഒരു അൻപതിനായിരം രൂപയുടെ വിലയുള്ള സാരിയൊക്കെ ഉണ്ടായിരുന്നു മ്മ് അൻപതിനായിരം രൂപയുടെ അപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഞാനിപ്പം ഇത്രയും വില കൂടിയ ഡ്രസ്സുകൾ തന്നുകഴിയുമ്പോൾ ആ ഡ്രസ്സുകൾ എന്നാ എൻ്റെ ഡ്രസ്സുകൾ തന്നെയാണോ നിങ്ങൾ ഡ്രൈ ക്ലിൻ ചെയ്യുന്നത് ഡ്രൈ ക്ലിൻ ചെയ്യുന്നത് ആണോ അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇപ്പം ഞാൻ വേറെ സെർവെൻ്റിനെ പറഞ്ഞ് വിട്ടാൽ മതിയാകുമോ അവർ എല്ലാം നോക്കി അവിടെ അന്നേരം ഇവിടെ വന്ന് കഴിയുമ്പം എന്തേലും ഡാമേജൊക്കെ സംഭവിച്ചിട്ടുണ്ടേൽ സംഭവിക്കാൻ പാടില്ല കേട്ടോ നിങ്ങൾ ഇത്രയും വിശ്വസ്തമായൊരു സ്ഥാപനമായതിൻ്റെ പേരിലാണ് ഞാൻ എൻക്വയറി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്ന് വിടുന്നത് ആ അപ്പം ശരി ഓക്കേ ഡൺ